ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ വാർത്താ മാധ്യമങ്ങൾ ജനങ്ങളെ വളരെ അധികം സ്വാധീനിക്കുന്നുണ്ട് ലോകത്തെ എവിടെ എന്ത് സംഭവങ്ങളും അപ്പവും ഞൊടി ഇടയിൽ ജനങ്ങളിൽ അറിയുകയും അത് പരസ്പരം ഓൺലൈൻ ഫ്ലാറ്റ്ഫോം മുഖാന്തരം പരസ്പരം ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഒരു അഡ്വാൻട്ടേജ് ഇപ്പോൾ സംജാതമായിരിക്കുവാണ് ഈ വാർത്തകൾ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ടോന്ന് ചോദിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൗരബോധവും വ്യക്തിബോധവും ഉയർന്ന ചിന്താഗതിയുള്ള വ്യക്തികൾ നിരന്തരം ലോകം ലോകത്ത് എന്ത് നടക്കുന്നു ലോക കാര്യങ്ങളെ കുറിച്ച് അവരപ്ഡേറ്റാണ് ആ അപ്ഡേറ്റ് ആകാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു എന്ത് എന്ത് എന്താണ് ലോകത്ത് നടക്കുന്നത് ലോകത്ത് ഓരോ നിമിഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ചലനങ്ങൾ സംഭവ വികാസങ്ങൾ ഇവയെല്ലാം ജനങ്ങൾ സമൂഹം അതെല്ലാം ചർച്ച ചെയ്യുകേം അതെല്ലാം വളരെ പക്വതയോടേം വളരെ സൂഷ്മതയോടും കൂടി നോക്കി കാണേം ചെയ്യണം ഇതിൽ വളരെ അധികമൊരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഓൺലൈൻ വാർത്താ വാർത്താ ചാനലുകൾ അന്താരാഷ്ട്ര വാർത്താ ചാനലുകൾ ലോകത്ത് എവിടെ എന്ത് സംഭവ വികാസങ്ങളും ഞൊടിയിടയിൽ നിമിഷ നേരം കൊണ്ട് തന്നെ ലോകത്തിൽ വിവിധ ഭാഗങ്ങളിലേക്ക് ഷെയറ് ചെയ്യപ്പെടുകയും അത് ലോകത്തുള്ള വിവിധ കോണുകളിൽ ആളുകൾ അത് വീഷിക്കുകേം അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകേം ജനങ്ങൾ തമ്മിലുള്ള ഒരു ഒരു സംയോഗിക സമ്മോദിക്കാനുള്ള ഒരു ഒരു ഒരു മാതി ഒരു മാ ഒരു മീഡിയേറ്റർ എന്ന രീതിയിൽ വാർത്താ ചാനലുകൾ ഇവിടെ നിലകൊള്ളുകയുണ്ട് ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ചലനങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങൾ അരാ മറ്റ് സാമൂഹ്യ മേഖലയിലെ പ്രതിഭാസങ്ങൾ ലോകത്ത് അതുപോലെ പുതിയ ട്രെൻഡുകൾ ഫാഷൻ ഇവയെല്ലാം ഞൊടിയിടയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും സാധിക്കും ഈ ഞൊടിയിടയിൽ നമുക്ക് കാര്യങ്ങളിൽ ഒരു കൃത്യതയും ഒരു വ്യക്തതയും നമുക്ക് ലോകത്ത് എന്ത് സംഭവിക്കുന്നോ അതായത് സ്പോട്സ് സംബന്ധമായിട്ടുള്ള ന്യൂസുകൾ പുതിയ പാഷൻ പുതിയ ടെക്നോളജി വിപണിയിലെ പുതിയ അപ്ഡേറ്റുകൾ രാഷ്ട്രീയപരമായിട്ട് അല്ലേ സൈനികപരമായിട്ടുള്ള കാര്യങ്ങൾ അന്താരാഷ്ട്ര കാര്യങ്ങളിൽ ഉള്ള ചർച്ചകൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാധിക്കും അതുപോലെ സാമ്പത്തികരപമായിട്ടുള്ള എന്ന് വച്ചാൽ ലോകത്തെ വിപണി വിദേശ രാജ്യങ്ങളിലെ വിപണികളിൽ അവിടുത്തെ സാമ്പത്തിക ഭദ്രത അവിടുത്തെ സാമ്പത്തികാര്യങ്ങൾ ആ വിപണിയിലെ പുതിയ ട്രെൻഡുകൾ വിപണയിലെ ഉണർവുകൾ വിപണിയിലെ പ്രതിഫലനങ്ങളെ പദനം വ്യക്തി വ്യക്തികളുടെ വിവരങ്ങൾ അല്ലേ ആ സമൂഹത്തെ മറ്റ് സമൂഹങ്ങളിലെ വിവരങ്ങൾ ഇതെല്ലാം നമുക്ക് ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ ലോകത്തെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ചിന്തകൾ അവർ ദിനശൈലികൾ അവരെ അവരെ പ്രവർത്തന മേഖല അവർ പ്രവൃത്തികൾ ഇതെല്ലാം ഇത്തരം മേഖലകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സാമൂഹികരമായിട്ടുള്ള ഒരു മറ്റൊരു സ്ഥലത്തെ കാര്യങ്ങൾ ഇത് ഞൊടിഞൊടിയിടയിൽ മറ്റ് സ്ഥലങ്ങളിലെ അല്ല മറ്റ് സ്ഥലങ്ങളിലെ അറിയാൻ ഈ മാധ്യമങ്ങൾ ഒരു ഒരു വളരെ പ്രാധാന്യമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലോകത്തെ പുതിയ ട്രെൻഡ് ഫാഷൻ പുതിയ വസ്ത്രങ്ങൾ ആയപ്പോലും മറ്റ് വാഹന വിപണിയിലെ ട്രെൻഡുകൾ ലൈഫ് സ്റ്റൈലായിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുക്കൾ ഇതിൽ എല്ലാം ട്രെൻഡ് അല്ലെങ്കിൽ ഇതെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് മാ വാർത്താ മാധ്യമങ്ങളിൽ പോലെ പുറം ലോകത്തെ അറിയാൻ പറ്റും രാഷ്ട്രീയ പരമായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഇപ്പം അമേരിക്കയിൽ പുതിയ ട്രൻറ്റ് അധികാരത്തിൽ ട്രംമ്പ് അധികാരത്തിൽ എത്തി പിന്നെ ഉള്ള സംഭവവികാസങ്ങൾ അവിടുത്തെ രാഷ്ട്രീയ പശ്ചാതലങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള പുതിയ നിരീക്ഷണങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള പുതിയ സമവാക്യങ്ങൾ ഇതെല്ലാം അറിയ നമുക്ക് ഞൊടിഞൊടിയിടയിൽ ഇപ്പം അമേരിക്കേൽ എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ മറ്റേ ഉഗാഡേൽ എന്ത് സംഭവിക്കുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ ആമസോൺ കാടുകളിലെ അയ് അയിനെക്കുറിച്ചുള്ള വാർത്തകൾ ചൈനയിൽ ചൈനേ നടക്കുന്ന കാര്യങ്ങൾ ഇസ്രായേൽ നടക്കുന്ന കാര്യങ്ങൾ ഇസ്രായേല് ഹമാസ്വം പായസ് പാരസ്ഥീയമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതെല്ലാം പത്രവാ വാർത്താമാധ്യമങ്ങളൂടെയാണ് പുറം ലോകത്തേക്ക് അറിയുന്ന് പുറത്തുള്ള വിവരങ്ങൾ ഇതിൽ നമുക്ക് അപ്പം ഓരോ കാര്യങ്ങൾ അനുദിനം നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുക മനസ്സിലാക്കാനും കാര്യങ്ങളെ നിരീക്ഷിക്കുവാനും ഇതു ഇതു മൂലം നമുക്ക് സാധിക്കുന്നു അതുപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങൾ സാമൂഹ്യപരമായിട്ടുള്ള സാമൂഹിക ഓരോ ഓരോ ഓരോരോ വ്യത്യസ്ത മേഖലകളിലെ സംസ്കാരങ്ങൾ അവരുടെ ആഘോഷങ്ങൾ അവടുത്തെ ഭക്ഷണ ശൈലി അവരെ ജീവിത ശൈലികൾ ആ പ്രദേശത്തെ ജീവിത ശൈലികൾ അവരെ പ്രത്യേകത സവിശേഷമായ പ്രത്യേകതകൾ ഓരോ ഓരോ വിവാഹങ്ങളുടെ പ്രത്യേക ഇപ്പം ചില ഗോത്രങ്ങൾ ഇപ്പം നമ്മൾ ഇന്ത്യേ തന്നെ എടുത്ത് കഴിഞ്ഞാൽ ചില ഗോത്രങ്ങൾ അല്ലേ ചില സംസ്ഥാനങ്ങളിലെ ആദിവാസി വിഭാവങ്ങളെക്കുറിച്ച് ചില മനുഷ്യരുടെ ജീവിത ശൈലിയെക്കുറിച്ച് സമൂഹത്തിൻ്റെ മതപരമായ കാര്യങ്ങൾ മതപരമായ ചടങ്ങുകൾ ഇതെല്ലാം നമുക്ക് ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ ഒരു ബഹുഭൂരിപക്ഷം സാമൂഹ്യ പ്രതിപധ്യതയും ചിന്താഗതിയും ഉയർന്ന ചിന്താഗതിയും ഉള്ള വ്യക്തികൾ ഇത്തരം വാർത്തകൾ നിരന്തരം നീരീക്ഷിക്കുകേം അല്ലെങ്കിൽ അവർ ഒരു ഡേ ഒരു ദിവസത്തിൽ രണ്ട് തവണ എങ്കിലും ലോക വാർത്ത അല്ലെങ്കിൽ മൊത്തത്തിലുള്ള വാർത്തകൾ ശ്രദ്ധിക്കുകേം അത് അപ്ഡേറ്റ് ചെയ്യും ചെയ്യാറുണ്ട് എന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ലോകത്ത് എവിടെയാണ് അങ്ങനെ ഉള്ളൊരു കാഴ്ചപ്പാടും ഈ വാർത്താ മാധ്യമങ്ങളോട് നമുക്ക് അറിയാൻ പറ്റും കൗ അതുപോലെ കൗതുകം ഉയർത്തുന്ന വാർത്തകൾ അതുപോലെ എന്തേലും ഇൻസിഡൻ ഉണ്ടായിട്ട് ഉണ്ടെങ്കിൽ ആ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ സുനാമി ഉണ്ടായ ആ സമയത്ത് തന്നെ ലോകം മുഴുവൻ അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് അതിനെക്കുറിച്ച് അറിയുക ഉണ്ടായി അതിൻ്റെ തീവ്രതയും അതിൻ്റെ വ്യാപ്തി എത്ര എത്രയോ എത്രത്തോളമാണ് എന്നുള്ളത് അറിയാൻ സാധിച്ചു അതുപോലെ ലോകത്ത് ഉണ്ടാവാൻ അല്ലെങ്കിൽ സ്പോർട്സുവായിട്ട് ബന്ധപ്പെട്ടത് ബിസിനസ്സുവായിട്ട് ബെന്ധപ്പെട്ടത് രാഷ്ട്രീയ മതപരമായിട്ടുള്ള ഇപ്പം അടുത്ത കാലത്ത് മാർപ്പാപ്പ റോമിലെ മാ കത്തോലിക്ക സഭയെ പരമോന്ന സ്ഥാനം മാർപ്പാപ്പയുടെ ആരോഗ്യ നിലയെ കുറിച്ച് നിരന്തരം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അത് ആളുകൾ അത് വളരെ സൂഷ്മതയോടെ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ വിവിധ രാജ്യങ്ങളുള്ള അല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഉള്ള വിവിധ മതത്തിലും രാഷ്ട്രീയത്തിലും പെട്ടവരെ അത് ആ വാർത്തകൾ എല്ലാം വളരെ പ്രാധാന്യത്തോടെ വീക്ഷിക്കുക ഉണ്ടായി ഈ മാധ്യമങ്ങളുടെ ഒരു പ്രധാന പങ്ക് പങ്കാണ് അവർ അതിനകത്ത് വ്യക്തതയോടെ കൂടി വളരെ വ്യക്ത്യത ക്ലാരിറ്റിയോട് കൂടിയുള്ള ഒരു വാർത്ത കൊടുക്കുന്നു അത് അന്താരാഷ്ട്രമാധ്യമങ്ങൾ അത് ശ്രദ്ധിക്കുന്നു അത് ഏറ്റെടുക്കുന്നു ലോകത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുന്നു അപ്പം ഇതെല്ലാം ആളുകൾ കാണുകേം കേൾക്കുകേം ചെയ്യുന്നത് വാർത്ത ചാനല് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ്ഫോമ് എന്ന രീതിയിൽ വാർത്ത മാ മാധ്യമങ്ങൾക്ക് അതിൻറ്റൊരു പങ്കുണ്ട് ലോകത്ത് എന്ത് നടക്കുന്നു ലോകത്തിൻ്റെ പുതിയ ഈ ഇത് പ്രത്യേകിച്ച് ഇരുപത്തിനാലാം നൂറ്റാണ്ട് വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ അതായത് സമൂഹത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കാനുള്ള മാറ്റങ്ങൾ വരെ ഈ വാർത്ത ചാനലുകൾക്ക് അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങൾക്ക് ഉണ്ട് അത്ര പ്രാധാന്യം സ് ഈ സാമൂഹിക ജീവിതത്തിൽ അല്ലെങ്കിൽ സാമൂഹിക വിപ്ലവത്തിൽ ഈ ഈ മാധ്യമങ്ങൾക്ക് ഉണ്ട്